മാധ്യമ സ്വാതന്ത്ര്യം ഒരു ഒരു പരിധിവരെ നല്ലതാണ് പക്ഷേ പലപ്പോഴും ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ മാധ്യമങ്ങളെ നമ്മൾ കാണാറുണ്ട് ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് അതിൽ ഒത്തിരി പേർക്ക് അപകടങ്ങൾ സംഭവിച്ചു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒത്തിരി സാധിച്ചു കാരണം നമ്മുടെ സഹോദരങ്ങൾ അടെ വിഷമം അനുഭവിക്കുന്നത് നമ്മൾക്ക് നമ്മളുടേതായി ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത് മാധ്യമങ്ങളുടെ ഒരു വലിയ ആ ഒരു വലിയ സ്വാധീനം കൊണ്ടാണ് നമുക്ക് അത് സാധിച്ചത് അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ ചില ചെറിയ ചെറിയ തെറ്റുകളെ പോലും പർവ്വതീകരിച്ചു കാണിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഏത് നമ്മുടെ കുടുംബത്തിൽ പിറന്ന ഒരു കുഞ്ഞിനാണേലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചില ധാർമികമായ ചില പ്രശ്നങ്ങളായിരിക്കാം അവർക്ക് അറിയാൻ മേലായ്മ കൊണ്ട് കുറ്റം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം ആ പ്രശ്നങ്ങളെ പാർവതീകരിച്ചു അവർ ഭയങ്കരം എന്തൊക്കെയോ ഒരു തെറ്റായിട്ട് കാണിച്ചു കൊണ്ട് ചില വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പോലും ഹനിക്കുന്ന രീതിയിൽ ഈ മാധ്യമങ്ങൾ പ്രവർത്തിക്കാറുണ്ട് പലപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ കർണാടകയിൽ ഒരു പയ്യനെ കാണാതെ പോയി വെള്ളത്തിൽ പോയി മുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നു അപ്പം നാൽപ്പത് ദിവസത്തെ ഏകദേശം പത്ത് നാൽപ്പത് ദിവസമായി ഇപ്പം നമുക്ക് ഈവൻ നമ്മുടെ ഒരു മനുഷ്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം അതൊരു കടലിൻ്റെ തുരങ്കത്തിൻ്റെ ഭാഗത്താണ് അത് സംഭവിച്ചിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി അത് ഇനി കിട്ടിയാൽ പോലും ആ ബോഡി തിരിച്ചറിയാൻ മേലാത്ത ഒരു അവസ്ഥയിൽ ആയിരിക്കും പക്ഷെ അതിനെ ഒന്ന് പർവ്വതീകരിച്ച് കൊണ്ട് അങ്ങനെയാണ് ഒരു വീട്ടുകാരുടെ വികാരത്തെ ആളിക്കത്തിച്ചു കൊണ്ട് എന്തൊക്കെയോ മാധ്യമങ്ങൾ കാട്ടി കൂട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെച്ചാ ഓരോ തരം പ്രഹസനങ്ങളായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ എഡുക്കേഷനിൽ ആണേലും തെറ്റിനെ ചൂണ്ടി കാണിക്കുന്ന മാധ്യമങ്ങളില്ല എന്നല്ല തെറ്റിനെ ചൂണ്ടി കാണിക്കുന്ന ഒത്തിരി മാധ്യമങ്ങളുണ്ട് പക്ഷെ ചിലർ നമ്മുടെ രാഷ്ട്രീയ ആ സ്വാധീനങ്ങളെയൊക്കെ പ്രീതിപ്പിക്കാനായിട്ട് എന്ത് തെറ്റിനെയും മൂടി വച്ചോണ്ട് അതൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു സംസ്കാരവും നമ്മുടെ ഇടയ്ക്ക് ഇപ്പോൾ കാണാറുണ്ട് മാധ്യമങ്ങളെ ഇടയ്ക്ക് പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അവർ എല്ലാ മാധ്യമങ്ങളും ചില വ്യക്തി താൽപ്പര്യങ്ങൾക്കും ചില പിന്നെ സമുദായ താല്പര്യങ്ങൾക്കും വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് ശരിക്കും അത് ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യം വച്ചു കൊണ്ടല്ല മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പം ഒരു ഇപ്പോൾ ഒരു പർദയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പം ഈയിടെ നമ്മുടെ ഒരു സ്കൂളിൽ അത് പിന്നെ അവിടെ നിസ്കരിക്കാൻ സ്ഥലം കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ ഒരു സ്കൂളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു കൊണ്ട് സമരം ചെയ്തതാണെങ്കിലും ഇതൊക്കെ വച്ചാൽ ഇങ്ങനുള്ള പ്രശ്നങ്ങളെ അത് ഒരു മാധ്യമങ്ങളും കാണിക്കാറില്ല എന്നാൽ ഇതിന് ഒന്നും ഇത്രയും പോലും വാല്യു ഇല്ലാത്ത ചില പ്രശ്നങ്ങളെ പർവതീകരിച്ച് അതിൻ്റെ വെല്ലു വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഇടയ്ക്കും സ്പർധ വളർത്താനുമൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട് മാധ്യമങ്ങൾ ശ്രമിക്കുകയല്ല അത് അതൊക്കെ ആരോ ലോബിയുടെ പിന്നണികളായിട്ട് അവർ വർക്ക് ചെയ്യാറുണ്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് കാണുന്ന എല്ലാ വാർത്തകളും നൂറ് ശതമാനം വിശ്വസിക്കാം എന്ന് ഞാൻ പറയത്തില്ല എങ്കിലും നമ്മൾക്ക് ഇന്ന് കാണുന്ന വാർത്തകൾ ഇത് ഇങ്ങനെ വാർത്ത സംഭവിച്ചുണ്ടെന്ന് പറയാം പിന്നെ അത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്തു കൊണ്ട് അതിന് എത്രത്തോളം വിശ്വാസ യോഗ്യമാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് പല വാർത്തകൾ ഇപ്പം തന്നെ പല ഇപ്പം ന്യൂസ് ചാനലുകളാണെലും അത് ഏഷ്യാനെറ്റുണ്ട് മാതൃഭൂമിയുണ്ട് മലയാള മനോരമയുണ്ട് അങ്ങനെ പല ചാനലുമുണ്ട് ഈ പല ചാനലുകളിലെ വാർത്തകളും നമ്മൾ ഒരേപോലെ കണ്ടു കഴിയുമ്പം നമുക്ക് അറിയാം ഇതിനകത്ത് ഏകദേശം ഇത്രത്തോളമൊക്കെ സത്യസന്ധതയുള്ളൂ ബാക്കിയൊക്കെ കുറച്ച് ഓരോരുത്തരുടെയും പ്രസ്സ് ചെയ്ത് അവർ പുഷ് ചെയ്ത് പറയുന്നതാണ് അവർ ഓരോ ഓരോ മാധ്യമങ്ങളെ പുഷ് ചെയ്തു പറയുന്നതാണ് അല്ലെങ്കിൽ ആ സംഘടനയെ പുഷ് ചെയ്തു പറയുന്നതാണെന്ന് അറിയുന്നത് ഏകദേശം നമുക്ക് പല വാർത്തകൾ കാണുമ്പം നമുക്ക് അതിനകത്ത് ഏകദേശം സത്യ രൂപമൊക്കെ മനസിലാവും നൂറ് ശതമാനം വിശ്വസിക്കാമെന്ന് ഞാൻ പറയത്തില്ല